ഇവിടെ മയക്കുമരുന്നും കൊലകളും ഭയങ്കരം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയെന്ന് വെച്ചാല് ആർക്കും നോക്കാനും ഇരിക്കാനൊന്നും സമയമില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങള് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയെന്ന് വെച്ചാല് മയക്കുമരുന്ന് കൊണ്ട് നാട്ടിലെ ചെക്കന്മാരെല്ലാം വഴിതെറ്റി നടക്കുകയാണ് യുവാക്കളിലാണിത് പിടിപെടുന്നത് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഈ ഭീകരവാദത്തോടെയൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാര് സമൂഹത്തില് ഇറങ്ങിപ്പോകുന്നത് അതും നമ്മുടെ വളരെ പഠനം ഏകദേശമൊരു പ്ലസ് ടു പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ വിചാരം അവരൊരു വലിയൊരു ബോധം വെച്ചന്നുള്ള രീതിക്കാണ് ആളുകളോട് പെരുമാറുന്നതും സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് ഭാവിയിലെ ദോഷങ്ങളെക്കുറിച്ച് അവർക്കത് അറിയുന്നില്ല അവര് അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ കാര്യങ്ങള് അവര് തിരക്കുന്നില്ല വിദ്യാഭ്യാസമെന്ന് പറഞ്ഞാല് നമുക്കത് ഒരു ചെറിയ കാര്യമല്ല അത് സ്കൂളുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കാര്യങ്ങള് തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നാട് പോകുന്നത്